ആ ആ നിങ്ങളെവിടെത്തി പാലക്കാടാ എപ്പോഴാണ് ഞങ്ങളുടെ സ്ഥലത്തെത്തുക ആ ഇരുപത് മിനുറ്റെടുക്കുമല്ലേ ആ എന്നാൽ ചേട്ടനവിടെ നിന്നോ ഇനീ വരാൻ നിൽക്കണ്ട ഞാൻ നിങ്ങളുടെയടുത്ത് എപ്പോഴാണ് ടൈം പറഞ്ഞത് ഒരു മണിക്കെത്തണമെന്നല്ലെ പറഞ്ഞത് ഇപ്പം എത്ര ടൈം ഒന്നര നിങ്ങളിനി ഇരുപത് മിനിറ്റ് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടേ എത്തുകയുള്ളൂ അപ്പോൾ ഒരൊന്നേ മുക്കാൽ ആ റേഞ്ചിലെത്തും ചേട്ടാ ഞങ്ങൾക്ക് ഇവിടുന്ന് ഈ വണ്ടി കിട്ടിയിട്ടു വേണം ഞങ്ങൾക്ക് കുറേ സ്ഥലത്തേക്ക് പോകാൻ ചേട്ടൻ്റടുത്ത് ഞങ്ങൾ വ്യക്തമായിട്ട് ബുക്ക് ചെയ്യുമ്പം പറഞ്ഞതാണ് ഇത്ര ടൈമിൽ കൃത്യായിട്ടെത്തണം ഇന്ന ദിവസം ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് നിങ്ങളിപ്പോഴും ഈ സ്ഥലത്ത് എത്തിയിട്ടില്ല ഞങ്ങളിപ്പോൾ എന്താ ചെയ്യണ്ടേ ഇവിടുത്തെല്ലാരും കൂടി പറയുന്നത് ബുക്കിങ് ക്യാൻസലാക്കിക്കോ ക്യാമ്പ് നിർത്താനാണ് ഉദ്ദേശിക്കണേ നിങ്ങളീ ഒരൊറ്റ അനാസ്ഥ മൂലമാണ് ഞങ്ങൾക്കിപ്പം ഇങ്ങനൊരു പ്രശ്നം നേരിട്ടത് നിങ്ങളുടെയടുത്ത് ഞങ്ങൾ ബുക്ക് ചെയ്യുമ്പോൾ വ്യക്തമായി പറഞ്ഞു ഇന്ന സ്ഥലത്ത് ഇന്ന സമയത്ത് ഇന്ന ഡേയ്റ്റിന് കൃത്യമായിട്ട് എത്തണം ആ എത്താൻ പറ്റുമെങ്കിൽ മാത്രം ബുക്കിങ്ങെടുത്താൽ മതി അപ്പം നിങ്ങളോക്കെ ഞങ്ങൾക്കെത്താം ഞങ്ങളെല്ലാം റഷ് ചെയ്യുകയാണ് അതാണ് പറഞ്ഞിട്ട് ഇപ്പപ്പം ട്രാഫിക്കുണ്ടെന്നോ ചേട്ടാ എല്ലായിടത്തും ട്രാഫിക്കുണ്ട് അപ്പം ട്രാഫിക്കില്ലാണ്ട് എല്ലാണ്ട് എല്ലാ ഭാഗത്തും ട്രാഫിക്കുണ്ടെന്ന് നിങ്ങക്കുമറിയാം ഞങ്ങൾക്കുമറിയാം അതി ഈദിൻ്റെ സമയത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ട്രാഫിക്കൊക്കെ ഉണ്ടാവില്ലേ അത് നിങ്ങൾക്ക് അറിയുന്ന കേസല്ലേ അത് ഇത് നേരത്തെ ഇറങ്ങണം അല്ലാണ്ടിപ്പം ഞങ്ങളെന്താ പറയുക നിങ്ങൾ എന്തായാലും എന്തായാലും ബുക്കിങ് ക്യാൻസലാക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കണെ അപ്പം നിങ്ങളുടേ ഏജൻസിയെ വിളിച്ചു പറയാനിപ്പം പറഞ്ഞതു കൊണ്ട് ഞാൻ വിളിച്ചു പറയണേ ചേട്ടൻ ഇപ്പം ഏടെത്തിയിട്ടുണ്ടെങ്കിലും എന്തായാലും തിരിച്ചു പൊയ്ക്കോ ഞങ്ങൾ എന്തായാലും ഞങ്ങളുടെ ട്രിപ്പ് ക്യാൻസലാക്കി നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ അനാസ്ഥ മൂലം ഞങ്ങളൊരു ട്രിപ്പ് ക്യാൻസലായിപ്പോയി അത്രതന്നെ ചേട്ടാ ഇത് ഇനി ഇങ്ങനൊന്നും വേറെ ആൾക്കാരുടെയടുത്ത് ചെയ്യാൻ നിങ്ങളുടെ ഏജൻസീ നോക്കുക കൃത്യ ടൈമിൽ നോക്കുക